ഹലോ ആ മാനന്തവാടി ഹ്യൂണ്ടായ്ൻ്റെ ഷോറൂമാണ് പറഞ്ഞോളൂ

നമുക്കിപ്പോൾ ഹ്യൂണ്ടായുടെ ഇയോണ് വരുന്നുണ്ട് ഐ ട്വന്റിയുണ്ട് ഐ ടെൻ ഉണ്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടെ കൂടിയതുവേണേൽ ക്രെറ്റയൊക്കെ വരുന്നുണ്ട് ഏതാണ് മാഡം എത്ര ബഡ്ജറ്റിലെങ്ങനെയാണ് നോക്കുന്നത് കുറഞ്ഞതു നമുക്ക് ഒരു ഐ ട്വന്റി നോക്കാമല്ലേ അതാകുമ്പോൾ നമുക്ക് ഇത്രയ് വണ്ടിക്ക് എട്ടുലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയാണ് മാക്സിമം പോയാൽ നമുക്ക് വരുന്നത് എങ്ങനേ ഇ എം ഐ ഓപ്ഷൻ വരുന്നുണ്ട് ഫസ്റ്റ് ഇപ്പം നമുക്ക് നൈന്റി പേഴ്സിന്റേജ് വരെ ലോൺ കിട്ടും മാഡം അപ്പോൾ നമുക്കൊരു തൊണ്ണൂറായിരം രൂപ പേയ്മെന്റ് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിറക്കാം ഇ എം ഐ ഉണ്ട് നമ്മളിപ്പോൾ ഫൈവ് ടു സെവൻ ഏജ് വരെ നമുക്കിപ്പോൾ ലോണ് തരും അതിപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ നമുക്ക് ലോണ് ചെയ്യാം മാഡം എന്തേലുമാണോ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ വണ്ടിയെടുക്കാൻ അങ്ങനെന്ത് പഴയവണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് പുതിയതെടുക്കാൻ അങ്ങനെന്തെങ്കിലും പ്ലാനാണോ പുതിയതുതന്നെ അല്ലാണ്ട് തന്നെ ആ ഒക്കെ ഒക്കെ ആ ഓക്കേ മൈലേജ് അത്രയും ഇരിക്കട്ടെ അല്ലേ വീട്ടില് മെംബേർസ് കൂടുതലാണോ സെവൻ സീറ്റർ അങ്ങനെന്തേലും വേണോ മൂന്നാളേ ഉള്ളൂ ഓക്കേ നമുക്കപ്പോൾ മൈലേജൊക്കെ നോക്കിയെടുക്കാനാണെങ്കിൽ നമുക്ക് ഇയോണൊക്കെ ബെറ്ററായിട്ടുള്ള ഒരു വണ്ടിയാണ് പിന്നേ അത്യാവശ്യം എന്താ പറയുക ക്വാളിറ്റിയുള്ള നോക്കിയെടുക്കാനാണെങ്കിൽ ഐ ട്വന്റിയാണ് ഞാൻ പറഞ്ഞത് പോലെ ബെറ്റർ വണ്ടിയാണ് അപ്പോൾ മാഡം നാളെയെന്നാൽ ഷോറൂമിലേക്ക് വന്നാൽ മതി ഞാനിവിടെയുണ്ടാവും അപ്പോൾ എത്രാ പേയ്മെന്റ് വേണ്ടേയെന്നു പേയ്മെന്റിന് അനുസരിച്ചു നമുക്കെന്തായാലും വണ്ടിനോക്കാം പിന്നെ മാഡം മാത്രമാണോ ഉണ്ടാവുക ഫാമിലിയിൽ നിന്ന് ആരേലും കൂടെവരില്ലേ ആ ഒക്കെ ഒക്കെ അപ്പോൾ നമുക്ക് വന്നിട്ട് കളർ കളറങ്ങനെയെന്തെലും നോക്കുന്നുണ്ടോ കളറെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് റെഡ് ബ്ലൂ ബ്ലാക്ക് അങ്ങനെ കുറേ വേരിയേഷൻ വരുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത്

ആ പറഞ്ഞോളൂ ആണല്ലേ ആ ഏതായാലും മാഡം നാളെയൊന്നു ഷോറൂമിലേക്ക് വന്നാൽ മതി നമുക്കപ്പോൾ ഇവിടുന്നു ബാക്കികാര്യങ്ങൾ തീരുമാനിക്കാം ആ ഓക്കേ നാളെ ബുക്ക് ചെയ്യുന്നുണ്ടാവുമല്ലോ അല്ലേ ആ ഓക്കേ മാഡം